ഞങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും കുടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷിയാണ് കൃഷിയെന്ന് പറയുമ്പോൾ നെല്ല് പിന്നെ വാഴക്കൃഷി പിന്നെ തോട്ടങ്ങൾ അതുപോലെ എന്താ കവുങ്ങ് തെങ്ങ് പിന്നെ പിന്നെ പച്ചക്കറികൾ അങ്ങനെയുള്ളതാണ് നമ്മളെ നാട്ടിലൊക്കെ കൂടുതലും ആളുകൾ ചെയ്തു പോരുന്നത് അതിൻ്റെ എന്താ നേട്ടങ്ങളെന്തൊക്കെയാണെന്നു ചോദിച്ചാൽ അതിൽ നേട്ടങ്ങളാണ് അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് എന്താ ആ പാകമായി പറിച്ച് കടകളിൽ കൊടുക്കുകയും അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ നിന്നും അതുപോലെ പുറം നാടുകളിൽ നിന്നൊക്ക ആളുകൾ നമ്മളെ വിനോദ സഞ്ചാരികളായിട്ട് ഇതൊക്ക കാണാൻ ഈ ഗ്രാമീണ ഭംഗി നെല്ല് നെൽക്കതിർ അതൊക്ക കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെയാണ് ധാരാളം ആളുകൾ എത്താറുണ്ട് പിന്നെ പിന്നെയിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊരു കാറ്റ് വീശിയാൽ അല്ലെങ്കിൽ നന്നായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെള്ളം കയറും കാറ്റടിച്ചു കഴിഞ്ഞാൽ വാഴക്കൃഷിയാണെങ്കിൽ ഒക്കെ ഒടിഞ്ഞ് പോവും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടം വന്ന് നമ്മൾ എപ്പോഴും എന്താ കർഷകർ കർഷകരുടെ എന്താ ബുദ്ധിമുട്ടുകൾ നമ്മൾ പത്രത്തിലൂടെ അല്ലാണ്ട് ഒക്കെ നമ്മൾ ന്യൂസുകളിലൊക്കെ വായിച്ചു കേൾക്കാറുണ്ട് കാരണം വളരെ കഷ്ടമാണ് ഒരുപാട് എന്താ ലോണെടുത്തിട്ടൊക്കെയാണ് അവർ നെൽക്കൃഷിയൊക്ക ഇറക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എടുത്ത സമയത്തെ ഒരു സംഖ്യ ആയിരിക്കില്ല അവർക്ക് ഇത് നെയ്ത് അവരെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അത് ഒരു വിപണന മേഖലയ്ക്ക് എത്തിക്കുമ്പോൾ വളരെ നഷ്ടത്തോടു കൂടിയിട്ടൊക്കെയാണ് അവരത് പിന്നെ കൊടുക്കുന്നുണ്ടാവുക അങ്ങനെ അവർക്ക് ഭയങ്കര നഷ്ടം വരികയും പിന്നീട് അവരൊരു ആത്മഹത്യയിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പത്രങ്ങളിൽ ന്യൂസുകളിലൊക്കെ നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ് അപ്പം അതൊക്ക എന്താ കർഷകർ നേരിടുന്നൊരു പ്രശ്നമാണ് ഇതിന് നേട്ടങ്ങളും ഉണ്ട് ഇത് ഏറ്റവും വലിയൊരു വെല്ലുവിളി ആയി മാറുന്നൊരവസ്ഥയാണ് ഇപ്പോഴൊക്കെ പ്രത്യേകിച്ചും കാലാവസ്ഥ എന്താണെന്നറിയാത്ത ഒരവസ്ഥയിൽക്കൂടി എപ്പം മാറും എന്ന് അറിയാത്ത ഒരവസ്ഥയിൽക്കൂടി ആയതുകൊണ്ട് കർഷകർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാൻ തന്നെ ഇപ്പോൾ പലരും പിന്നോക്കം നിൽക്കുകയാണ്